കോളേജ് ഡിഗ്രിയുള്ള ഒരുപാട് വ്യക്തികളെ എനിക്ക് നേരിട്ടും അല്ലാതെയും പരിചയമുണ്ട് അതിൽ ജീവിതത്തിൽ മുന്നേറണമെന്ന ജീവിത ലക്ഷ്യത്തോടുകൂടി കലാലയ ജീവിതത്തെ ആസ്വദിച്ചും പഠനത്തെയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള വ്യക്തികൾ അവർ എന്നും മുന്നേറിയിട്ട് തന്നേ ഉള്ളൂ അവർ അവരുടെ ജീവിതത്തിൽ ജീവിത ലക്ഷ്യത്തിൽ എത്തിയിട്ടുണ്ട് കാരണം അവർക്ക് അവരുടെതായ ദൃഢനിശ്ചയങ്ങളും അവരുടേതായ ജീവിത സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളും എന്നും അവരെ മുന്നിലേക്കുയർത്തിക്ക് ഉയർത്തി എഴുന്നേൽക്കുവാൻ പ്രചോദകമായിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു ആയതിനാൽ ഒരു കോളേജ് ഡിഗ്രി ഇല്ലെങ്കിലൊരു കലാലയ ജീവിതം കഴിഞ്ഞ് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങി നാം എവിടെയെങ്കിലും ജോലിക്ക് കയറുകയെന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രസ്തുതമായിട്ടുള്ളൊരു ഘട്ടമാണ് കാരണം പണിയുള്ളവനെ ഇന്ന് സമൂഹത്തിൽ വിലയുള്ളൂ യാതൊരു വിലയുമില്ലാതെ ജീവിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ആയതിനാൽ നമ്മുടെ ലക്ഷ്യത്തെ സാധൂകരിക്കുക നമ്മുടെ ലക്ഷ്യത്തെ പിൻതുടരുക നമ്മുടെ ലക്ഷ്യത്തെ എന്നും പിൻപറ്റി ജീവിക്കുക